അതായത് ഒരു ബാങ്കിൽ ഞാൻ എൻ്റെ കുറച്ച് എമൗണ്ട് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് എനിക്ക് എടുക്കണമെങ്കിൽ ഞാൻ എൻ്റെ ആധാര് അതുമായിട്ട് ലിങ്ക് ചെയ്യണം ലിങ്ക് ചെയ്താലെ എനിക്ക് അതിന് ചെയ്യും എടുക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ഞാൻ ലിങ്ക് ചെയ്തിട്ടില്ല അപ്പം ആദ്യം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വച്ചാൽ ആദ്യം ആ ബാങ്കുകാരനോട് ഞാൻ ഒരു അപേക്ഷ കൊടുക്കും എൻ്റെ ആധാരും എൻ്റെ ബാങ്ങ് ബുക്കുമായിട്ട് എനിക്ക് ലിങ്ക് ചെയ്യണം നിന്നിട്ട് എന്നിട്ട് അവർ അത് അക്സെപ് ചെ യ്തു കഴിഞ്ഞിട്ട് ഞാൻ പ്രോപ്പർ ആയിട്ട് ഒരു ഇതിൽ ഞാൻ മൂവ് ചെയ്യുവായി ചെയ്യും ഇതാണ് എൻ്റെ ഒരു ഇത്